എസ് ബി ഐ ബാങ്ക് അല്ലെ ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി വിളിച്ചത് ആയിരുന്നെ ഒരു വണ്ടി എടുക്കാൻ ആയിരുന്നു അപ്പം അതിന് വേണ്ടി വിളിച്ചത് ആയിരുന്നു ഒരു ഒമ്പത് ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഉണ്ട് കാറ് ബി എം ഡബ്ല്യു മോഡല് നോക്കാൻ ആയിരുന്നു ഒരു സിക്സ്റ്റീൻ ലാക്ക്സിന് മേലേക്ക് കിട്ടോന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ആ സ്ഥലമുണ്ട് ആ ഗോൾഡും കാര്യങ്ങള് കുറച്ച് ഉണ്ട് ഒര് രണ്ടേക്കർ ഉണ്ടാവുമായിക്കും ആധാരത്തിൻ്റയാ

ആ ഓക്കെ ഇല്ലില്ലാ അക്കൗണ്ട് ഇല്ല ആ അപ്പം അക്കൗണ്ട് എടുക്കുന്നേന് എന്തൊക്ക പ്രൂഫ് വേണം ആ ഓക്കെ

ആ ഓക്കെ

അപ്പൊൾ ഇത് നാളെ വന്നാൽ ശരി ആക്കിത്തരാമോ ആ നാളെ ഓപ്പൺ അല്ലെ ബാങ്ക് ആ അപ്പം നാളെ എന്നാൽ ഞാൻ വരാം